ആ ഹലോ ആ ഇത് ആരാ ആ നിങ്ങൾ എവിടുന്നാണ് നിങ്ങൾ എവിടുന്നാ ആ ആ ടൗണിൽത്തന്നെയാണ് ആ ആ ജോര്ജ് അല്ലേ ഞാന് കേട്ടിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ ആ നിങ്ങള് എന്റെ കുട്ടനാട്ടിൽ എനിക്ക് ഇച്ചിരി വസ്തുവുണ്ട് അപ്പം അത് ഉണ്ട് ടൗണിലും ഉണ്ട് അപ്പോൾ ഉള്ളടേലായിട്ടും ഇച്ചിരി വസ്തുവുണ്ട് നിങ്ങൾ ഏത് പ്രോപ്പര്ട്ടിയാ ഉദ്ദേശിക്കുന്നത് ആ മാപ്രാ കരഭൂമിയുണ്ട് കേട്ടോ കണ്ടാ ആ ആഹ് ആ ആ ആ ആ അപ്പം ഞാൻ ആ അപ്പം ഇത്

അതാണെന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം പിന്ന മറ്റ് ആ ആഹ്

ആ അപ്പം ഏതായാലുവേ ആ പിന്നെ മറ്റേ ആ വസ്തുവാണെങ്കിൽ അത് നിങ്ങൾ എന്നാ വിലക്ക് എടുക്കും മറ്റേ ആ ഉള്ളടയിലുള്ളത് നിങ്ങൾക്ക് പ്രോപ്പര്ട്ടി അറിയാമല്ലോ പ്രോപ്പര്ട്ടിയെപ്പറ്റി അറിയാമല്ലോ ആ ആ അതിനെന്നാ വിലക്ക് ആണേ എടുക്കും ആ ഏഴ് ലക്ഷം രൂപായൊക്കെ പോര അതെന്തായാലും അത് പിന്നെ നിങ്ങൾ ഈ പറയുന്ന കണക്കല്ല അത് ആ നിങ്ങൾ ഈ കണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾ ഈ വസ്തുവിൻ്റെ വിലക്ക് ഈ ഏഴ് ലക്ഷം രൂപയ്ക്കാണോ നിങ്ങൾ ഈ വസ്തു വേടിക്കാന് പോണേ അതിന് കുറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപ വച്ച് കിട്ടും പന്ത്രണ്ട് രൂപ കിട്ടണം പന്ത്രണ്ട് രൂപ എനിക്ക് കിട്ടണം അ ആ ആ പോന്നോള് ബാര്ഗേയ്ന് ചെയ്യുന്നതല്ല എനിക്ക് പിള്ളേരോട് ഒക്കെ ഒന്ന് ചോദിക്കണം പുള്ളിക്കാരനോടും ചോദിച്ചിട്ട് പുള്ളിക്കാരന് പിള്ളേരുടെ കൂടെ പോയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാന് ഇത്രയും മറുപടി പറഞ്ഞത് എനിക്കൊരു പന്ത്രണ്ട് രൂപ കിട്ടണം അപ്പോൾ നിങ്ങളൊരു

ആ ആ ആ ആ എന്നാൽ എന്നാലെ

ആ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ മ് മ്